ഇരുപത്തിയെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഒന്ന് ഇരുപത്തി അഞ്ച് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് നാല് രണ്ട് രണ്ടായിരത്തി അഞ്ച് പത്ത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ്